പ്രദേശത്തെ ഡോക്ടർമാരും നേഴ്സ്മാരും അനുഭവിക്കുന്ന വെല്ലുവിളികൾ പറയുമ്പോ അവർക്ക് മരുന്ന് മെഡിസിൻസ് അധികം ലഭിക്കാത്തതാണ് എല്ലാ മെഡിസിൻസും ആശുപത്രിയിൽ ലഭ്യമാവുന്നില്ല എന്നതാണ് പ്രധാന കാരണം എന്നുപറയണത് അതേപോലെ അവരുടെ ഷിഫ്റ്റ് ഒരാൾക്ക് ആറുമണിക്കൂർ അല്ലെങ്കിൽ എട്ടുമണിക്കൂർ ആണെങ്കിൽ ആ ഷിഫ്റ്റ് കഴിഞ്ഞു എന്നു പറഞ്ഞാൽ വേറെ ഷിഫ്റ്റ് ആളില്ലായ്മ ഇതൊക്കെയാണ് ഡോക്ടർമാരുടെ എണ്ണക്കുറവ് എണ്ണത്തിൽ ഗണ്യമായി വരുന്ന കുറവ് ഇതൊക്കെയാണ് പ്രധാനമായും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതേപോലെ അവരുടെ സേഫ്റ്റി അവർക്ക് വേണ്ടത്ര സേഫ്റ്റി ഇല്ലായ്മ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ഇല്ലായ്മ അതേപോലെ ഓപ്പറേഷൻ ആണെങ്കിലും അതേപോലെ ചികിൽസികാണാനെങ്കിലും അതിനുവേണ്ടിട്ടുള്ള സൗകര്യങ്ങൾ ബെഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ

അതിനു വേണ്ടിട്ടുള്ള എക്യുമെൻസ് ഇതൊക്കെ ഇല്ലാത്തതാണ് ഡോക്ടർമാരും നേഴ്സ്മാറും നേരിടുന്ന പ്രധാനവെല്ലുവിളികൾ എന്നു പറയുന്നത്